എൻ്റൊരു അഭിപ്രായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗ അതായത് നമുക്ക് ചെറുത് അതായത് നമ്മളൊരു മൂന്നു വയസ്സ് നാലു വയസ്സ് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ ശരീരത്തിന് അതായത് നമ്മുടെ ശരീരത്തിന് പല അസുഖങ്ങളും യോഗ മൂലം മാറും അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആദ്യമേ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു കൂൾ മൈൻഡായിരിക്കും എപ്പോഴും ഒരു റിലാക്സേഷൻ കിട്ടും അതായത് നമുക്കെന്തെങ്കിലും ടെൻഷൻ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ യോഗയിലൊക്കെ പോയിട്ട് കുറച്ച് നേരം നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ മാറും പിന്നെ ചെറിയ കുട്ടികൾ മുതൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ അവർക്കും നല്ലൊരു ശീലമായിരിക്കും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും അതായത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അങ്ങനെയുള്ള പല അതായത് അസുഖങ്ങൾ അതായത് തൈറോയ്ഡ് പി സി ഒ ഡി അങ്ങനെയുള്ള പോലെയുള്ളവ മാറിക്കിട്ടും പിന്നെ നമുക്ക് വ്യായാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ വ്യായാമമൊക്കെ നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് നല്ല അതായത് നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷവും കാര്യങ്ങളും കിട്ടും പിന്നെ നമുക്ക് ശരീരത്തിലെ കൊഴുപ്പ് അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ കാര്യങ്ങളൊക്കെ പോകും അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് എന്റെയൊരു പേർസണലായിട്ടുള്ളൊരു അഭിപ്രായം